ഞാനൊരു പാചകവും അതേപടി ചെയ്യാറില്ല എന്റേതായ മാറ്റം ഉണ്ടാവും ചിലപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഒക്കെ കുറച്ച് മതിയ സംഭവത്തിന് മല്ലിപ്പൊടി കൂടുതലിട്ടാൽ കറി ഒക്കെ നല്ല കുറുകി കിട്ടും ഇപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ വേണ്ട ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ മസാല മൂപ്പിക്കുമ്പോൾ മല്ലിപ്പൊടി കൂടുതിലിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ അല്ലാതെ നല്ല കൊഴുത്ത ചാറ് കിട്ടണേൽ മല്ലിപ്പൊടി ഒക്കെ കൂടുതലിടണം അതേപോലെ തന്നെ എന്റേതായ പൊടിക്കൈകളെല്ലാം തന്നെ ഞാൻ അതിനകത്തോട്ടു ചേർക്കാറുണ്ട് വേണ്ട സ്ഥലത്ത് എരിവ് കൂടുതൽ വേണെങ്കിൽ എരിവ് കൂടുതൽ ഇടും എരിവ് കൂടുതൽ വേണ്ടാത്ത കേസ് ആണ് ഞാൻ കൂടുതലും കാശ്മീരി ചില്ലി ആണ് ഉപയോഗിക്കുക അപ്പോൾ നല്ല നിറവും ഉണ്ടാവും എരിവും കുറവായിരിക്കും അതേപോലെ തന്നെ തേങ്ങ അരച്ചിട്ടുള്ളത് വലിയ എനിക്ക് താല്പര്യമില്ലെങ്കിലും തേങ്ങ അരച്ചിട്ടല്ലാതെ ഒക്കെ ആക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ എല്ലാത്തിനും എന്റേതായ മാറ്റം ഞാൻ എപ്പോഴും വരുത്താറുണ്ട് കറികൾക്കൊക്കെ